ചെറിയ കോഴികൾക്ക് തുടക്കത്തിൽ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു കോഴി തീറ്റയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു രണ്ടര മൂന്നുമാസമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ലയർ മാസ്സ് അതുപോലെത്തന്നെ ഗ്രോവറ് കോഴിത്തീറ്റ ആയിട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ നമ്മുടെ അവൈലബിളായിട്ടുള്ള ഗോതമ്പ് അരി കുതിർത്തു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ തേങ്ങാ പിണ്ണാക്ക് അതും കുതിർത്ത് ഈ കുതിർത്ത അരിയുടേയും ഗോതമ്പിനോടുമൊപ്പം ചേർത്ത് കോഴിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം പിന്നെ അതേ മുട്ട ഏകദേശം എനിക്ക് എൻ്റെ വീട്ടിൽ മുപ്പതോളം കോഴിയുണ്ട് അത് ഞാൻ ഒരു നൂറു സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ വല പ്ലാസ്റ്റിക് വല കെട്ടി അതിനകത്ത് ഇട്ടാണ് ഇതുങ്ങളെ വളർത്തുന്നത് പിന്നെ വൈകുന്നേരം ആകുമ്പം ഒരു നാലുമണിയോടുകൂടി തുറന്നുവിടും പുറത്തുപോയി അൽപ്പമൊക്കെ പച്ചപ്പുല്ല് ഒക്കെ തിന്നാൻ പറ്റും പിന്നെ അവൈലബിളിറ്റി അനുസരിച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് പഴങ്ങളുടെ വേസ്റ്റൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഗുണമേന്മയുള്ള മുട്ടയാണ് ലഭിക്കുന്നത്